ആദ്യം പാട്ട് സെലക്ട് ചെയ്യും അത് അതിന്റെ ലിറിക്സെല്ലാം നന്നായിട്ട് പഠിക്കും അതെഴുതി ഒരു ഡയറിയിൽ അതെഴുതി കോപ്പി ചെയ്തു വെക്കും അതിന് ശേഷം അത് കേട്ട് പല പ്രാവശ്യം പല ആവർത്തി അതു കേട്ട് പഠിക്കും അതിന്റെ ട്യൂൺ മനസ്സിലാക്കും അത് കഴിഞ്ഞിട്ട് അത് പാടി നോക്കും അതിനുള്ള കറക്ഷൻസ്സ് വരുത്തും അതു കഴിഞ്ഞ് വീണ്ടും പാടി നോക്കും ഇപ്പോൾ ആര് ആരുടെയെങ്കിലും സാന്നിധ്യത്തിലത് പാടി അതിനുള്ള കുറവുകൾ പറയാൻ പറയും പറഞ്ഞു കഴിഞ്ഞ് അതിനകത്ത് വരുത്തേണ്ട ലിറിക്സിൽ പിന്നെ ആ ട്യൂണിലും സംഗതിയിലും താളത്തിലുമൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മുടെ സൗണ്ട് വോയിസ് മോഡുലേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്ന അനുസരിച്ച് നമ്മൾ മാറ്റി ഏറ്റവും നന്നായിട്ടത് പാടി പരിശീലിച്ച് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങും അതിന് ശേഷം നമ്മൾ തന്നെ ഇപ്പം മൊബൈൽ സംവിധാനമുണ്ടല്ലോ മൊബൈല് തന്നെ ഒന്നു പാടി നോക്കും പാടി നോക്കി നമ്മൾ തന്നെയുള്ള പല പ്രാവിശ്യം പാടി ആദ്യത്തെ നന്നായിട്ട് അതെല്ലാം ഓക്കെ ആയതിന് ശേഷം ആണത് റെക്കോഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് ഗാനാലാപന പരിപാടിക്കാണെങ്കിൽ നമ്മൾ തനിയെയാണെങ്കിലും ഇതുപോലെ കേട്ടു കേട്ട് പല ആവർത്തി കേട്ട് പഠിച്ചിട്ട് കേട്ടു പഠിച്ച് നന്നായിട്ടത് തറോവാക്കി കഴിഞ്ഞാദ്യം ലിറിക്സ് പഠിക്കും പിന്നീടതിന്റെ ട്യൂൺ കേട്ടു പഠിക്കും മനസ്സിലാക്കും അതു കഴിഞ്ഞ് ആ ലിറിക്സ് നോക്കി അതു തനിയെ പാടി നോക്കും പാടിയിട്ട് വീണ്ടും അത് റെപ്പീറ്റ് ചെയ്തു കേൾക്കും കേട്ടിട്ടതിലുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത പ്രാവശ്യം നന്നാക്കിപ്പാടും അങ്ങനെ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പാടി പരിശീലിച്ചാണ് ഒരു ഗാനാലാപന പരിപാടിക്ക് നമ്മൾ ഒരുങ്ങാറുള്ളത് റെക്കോഡിങ്ങിനാവുമ്പം അതിനുള്ള അവരുടെ ആ ടീമുമായിട്ട് സഹകരിച്ചവർ പറയുന്ന അനുസരിച്ച് അവർ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ആ പഠിച്ച പാട്ട് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അതവിടെ റെക്കോഡിങ്ങ് സ്റ്റുഡിയോയിൽപ്പോയി പാടി ആ അവർ പറയുന്നതുപോലെ ആ നമുക്ക് പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ച പാട്ട് ആ ട്യൂണനുസരിച്ച് എല്ലാം ശരിയാക്കി താളവും രാഗവും എല്ലാം ഓക്കെയാക്കിപ്പാടി ഓക്കെയാകാറുണ്ട്